എനിക്ക് പലപ്പോഴും പലപ്പോഴെന്നല്ല ഇപ്പോഴും എന്നും എന്നും അന്നും ഇന്നും എനിക്കേറ്റവും കൂടുതലിഷ്ടമുള്ള പാട്ടുകൾ പഴയ സിനിമയിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടാവാറുള്ളത് എനിക്ക് നമ്മളെല്ലാവരും സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയുടെ സിനിമയിൽ അഴകിയ രാവണൻ എന്ന സിനിമയിലെ വെണ്ണിലാ ചന്ദനക്കിണ്ണം എന്ന സോങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും അത് വെച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനത് വെച്ച് കേൾക്കും മനസ്സിനും ഭയങ്കരാശ്വാസമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താൽപര്യം പണ്ടൊക്കെയായിരുന്നു പഷെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം പുതിയ സോങ്ങുകളാണ് പുതിയ സോങ്ങുതന്നെ നമുക്ക് ഇപ്പം ആരെ ആരെ സോങ്ങാ ഇപ്പം ആരെ പുതുമുഖങ്ങളുടെ സോങ്ങാണെങ്കിൽപ്പോലും നമ്മൾ അത് ഉള്ളിലേക്ക് ആസ്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഒരു ഇതിൽ എടുത്തിട്ടുണ്ട് എല്ലാ പാട്ടും ഞാൻ പാട്ടിലൊരു കണ്ടൻറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പാട്ട് നമ്മൾ അസെപ്റ്റ് ചെയ്യും ഒന്നും ഇല്ലെങ്കിലിനി വെറും മ്യൂസിക്കുള്ളൂ എങ്കിൽപ്പോലും നമ്മളത് അസപ്റ്റ് ചെയ്യും കാരണം പുതിയ പാട്ടുകളാണ് ഇപ്പം വന്നുകൊണ്ട് ഇരിക്ക്ണത് കൂടുതലായിട്ട് എന്നാൽ അന്നും ഇന്നും എൻ്റെ കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉള്ളത് പഴയ സിനിമയിൽ തന്നെയാണ് ഒരു രണ്ടായിരം രണ്ടായിരം ആ സിനിമകളിലെ പാട്ടുകളാണെനിക്കിഷ്ടം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അല്ല സോറീ എന്താ നടൻ എനിക്കേറ്റവും കൂടുതലിഷ്ടപ്പെടുന്ന നടൻ മലയാളത്തിലാണെങ്കിൽ മമ്മൂട്ടിയും ഇനിയിപ്പോൾ അന്യഭാഷയിലാണെങ്കിൽ അല്ലൂ അർജ്ജുനുമാണ് എനിക്കേറ്റവും ഇഷ്ടം എനിക്ക് തെലുങ്ക് സിനിമയിലെ സോങ് ഇഷ്ടമാണ് പഴയ സോങ്ങുകൾ മലയാള സിനിമയിൽ ഇതുതന്നെ കുറേ സോങ്ങുകളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ എനിക്കേറ്റവും കൂടുതൽ എന്നെ എന്താ പറയുക ഉള്ളിൽ തൊട്ട് വിളിച്ചിട്ടുള്ള പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ണിലാ ചന്ദനക്കിണ്ണം അത് അതിൽ നമ്മളെ മമ്മൂട്ടിയാണ് അഭിനയിച്ചിട്ടുള്ളത് എനിക്കേറ്റവും കൂടുതലിഷ്ടവും കമ്പവും താത്പര്യവും എല്ലാം എനിക്ക് പഴയ സിനിമകളോടാണ്